കലാസൃഷ്ടികൾ വാങ്ങാനോ വിൽക്കാനോ കഴിയുന്ന കേരളത്തിലെ പ്രധാന ആർട്ട് മാർക്കറ്റുകൾ നമ്മുടെ ഈ കേരളസാഹിത്യ അക്കാഡമി തന്നെ ഒരുക്കാറുണ്ട് അവിടെ പലയിടത്തും ഒരു ഫെസ്റ്റു തന്നെ നടത്താറുണ്ട് അതിൽ അവരുടെ കല കലാകാരന്മാരുടേയും അല്ലെങ്കിൽ ശില്പികളുടെയും അല്ലെങ്കിൽ എഴുത്തുകാരുടെയും കലാസൃഷ്ടി കാണികൾക്ക് കാണിച്ചുവെയ്ക്കും അത് കണ്ട് ഇഷ്ടപ്പെടുന്നവർ അത് വാങ്ങിക്കുകയും ചെയ്യും അങ്ങനെ ആർട്ട് ഗാലറികൾ പല പല പല സ്ഥലങ്ങളിലായിട്ടും കേരളത്തിലെ തൃശ്ശൂരിൽ മാത്രമല്ലാതെ പല സ്ഥലങ്ങളിലായിട്ടും അതായത് എറണാകുളത്തും നമ്മുടെ ക്ലേ ആർട്ട് കഫേ ക്ലേ ആർട്ട് കഫേ പിന്നെ പേൾ ആർട്ട് ഗ്യാലറി പിന്നെ ന്യൂ കാസിൽ ഗ്യാലറി അങ്ങനെ പല ഗ്യാലറികളിലും പിന്നെ ഒട്ടനവധി ബുക്ക് ഫെസ്റ്റുകൾ നടക്കുമ്പോഴും അവിടെയൊക്കെത്തന്നെ നമുക്ക് അല്ലെങ്കിൽ ആർട്ട് ഫെസ്റ്റുകൾ നടക്കുമ്പോൾ അത് പ്രൈവറ്റായിട്ട് ആൾക്കാർ നടത്തുമ്പോൾ അതിനൊക്കെത്തന്നെ സാഹചര്യം അത് അതൊക്കെത്തന്നെ ഇതിന് സാഹചര്യം ഉണ്ടാക്കുന്നു

അതിനോടനുബന്ധിച്ചുതന്നെ അവിടെ തൊട്ടടുത്തായിത്തന്നെ കുറേ മറ്റു കലാസൃഷ്ടികൾക്കും ഒരു ഒരു സംഭവം അവിടെ ഉണ്ടാകുന്നതായിരിക്കും